ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങളുണ്ട് കാണാനുള്ളത് ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കുറേ സ്ഥലത്തേക്കൊന്നും പോയിട്ടില്ല ഇവിടെ ഇവിടെ മലപ്പുറത്തുള്ള കോട്ടക്കുന്ന് പിന്നെ മിനി യൂട്ടി തേക്ക് നാസിയ അവിടെയൊക്കെയാണ് ഞാൻ പോയത് കൊട്ടക്കുന്നിന് ആ കോട്ട കുറേ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ പോയാൽ മലപ്പുറം അങ്ങാടിൻ്റെ കുറേ ഭാഗമൊക്കെ കാണാൻ പറ്റും പിന്നെ മിനി യൂട്ടിയിലും അതേപോലെ അവിടെ ക്ലാസുകൊണ്ടുള്ള പാലം ഉണ്ട് വിമാനം വന്നിറങ്ങുന്നതൊക്കെ കാണാം അവിടെപ്പോയാൽ കാണാം കാണാൻ പറ്റും പിന്നെ തേക്ക് മ്യൂസിയത്തിൽ കുറേ പണ്ടുകാലത്ത് നട്ടുമുളപ്പിച്ച തേക്കുകൾ ഉണ്ട് പിന്നെ മ്യൂസിയം ഉണ്ട് പണ്ട് തേക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ വയനാട്ടിൽ പണ്ടൊക്കെ പണ്ട് പോയതാണ് കുറേ സലങ്ങളൊക്കെ കയറിക്കൊണ്ട് പോകാൻ നല്ല രസമാണ് പിന്നെ അവിടെ നമുക്ക് തണുപ്പുകാലത്തൊക്കെ മഞ്ഞുമൂടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ മൂന്നാറ് ഇടുക്കിയിൽ മൂന്നാറ് നമുക്ക് കാണാൻ പറ്റും മുന്നാറിലൊക്കെ ഇന്ന് ഇപ്പോൾ ഓരോ തണുപ്പുള്ള സമയത്തൊക്കെ പോയാൽ കാണാൻ രസമാണ്